ഗ്രാമത്തിലേ പ്രായമായ ആളുകൾ കിടപ്പിലായതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർക്ക് പ്രായത്തിൻ്റേതായ അനിഷ്ടതകൾ ഉള്ളതുകൊണ്ടാണ് പിന്നേ ചിലർ ഒരൂ അറുപത് അറുപത്തഞ്ച് എഴുപത് വയസ്സൊക്കെ ആവുമ്പോഴേ കിടപ്പിലാകുന്ന ആളുകളുണ്ട് അത് ഒരു പരിധിവരെ അവരേ ബാധിച്ചിരിക്കുന്ന മറ്റു പല രോഗങ്ങളൊക്കെക്കൊണ്ടു കൂടിയാണ് എന്നു പറഞ്ഞാൽ ഒരൂ ഏതൊരു വസ്തുവാണെങ്കിലും ഇപ്പോൾ ഏതൊരു ജീവിയാണെങ്കിലും അതിനൊരൂ എക്സ്പ്പെയറി ഡേയ്റ്റുണ്ടല്ലോ അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ആളുകൾ സ്വാഭാവികമായും അവരുടെയൊരു പവറ് കുറയും ശരീരത്തിലേ അവയവങ്ങൾ ഓരോന്നോരോന്ന് ദുർബ്ബലവാകും അങ്ങനെയൊക്കെ ശാരീരികമായ ക്ഷീണം മാനസികമായ ക്ഷീണമൊക്കെ ഉണ്ടാവും ഇപ്പോൾ പഴയകാലത്തൊക്കെ ആളുകൾ ഇങ്ങനെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും അതു കൊണ്ടായിരുന്നു കിടപ്പിലായിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു പുതിയ കാലത്തേക്കെത്തുമ്പോൾ എന്താണ് ഈ ആധുനികമായിട്ടുള്ള രോഗം ജീവിതശൈലി രോഗങ്ങൾ ആളുകളേ വല്ലാതെ ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഷുഗറ് പ്രഷറ് കൊളസ്ട്രോള് ഇങ്ങനെയൊക്കെയുള്ള ഈ കാര്യങ്ങൾ ആളുകളേ ബാധിക്കുന്നു അപ്പോൾ അതൊക്കെ ഷുഗറൊക്കെ ബാധിക്കുന്ന ആളുകൾ വളരെ പെട്ടെന്ന് ഒരു രോഗാവസ്ഥയിലേക്കും ക്ഷീണാവസ്ഥയിലേക്കുമൊക്കെ എത്തുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇന്നത്തേ ആളുകളിൽ കൂടുതൽപ്പേരിലും ഈ അവർ കിടപ്പിലാകുന്നതിൻ്റേയും ഒക്കെ ഒരു കാരണമായി കാണുന്നത് പലപ്പോഴും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ഇപ്പം ഈ നമ്മുടെ ഒരു ഗ്രാമീണമായ ഒരു സാഹചര്യം വെച്ചു നോക്കുമ്പോൾ ഈ ഒരു സമയം വരെ പ്രായമായ ആളുകളെ അവരുടെ മക്കളും അല്ലെങ്കിൽ സമൂഹവുമൊക്കെ ശുശ്രൂഷിക്കുന്നതായിട്ടും പരിഗണിക്കുന്നതയിട്ടുമൊക്കെ ഉള്ള ഒരു അന്തരീക്ഷമാണുള്ളത് പക്ഷേ മറ്റു പല പ്രദേശങ്ങളിലേക്ക് നോക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വാസ്തവം നമ്മളറിയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്കും അത്തരത്തിലുള്ളൊരു സംസ്കാരം പതുക്കെ പതുക്കെ കടന്നുവരും എന്നുള്ളൊരു ആശങ്കയും ഭീതിയും ഓരോ വ്യക്തിയുടേയും ഉള്ളിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം